നമ്മൾ ശേഖരിച്ച സ്റ്റാമ്പുകൾ നാണയങ്ങൾ കല്ലുകൾ എന്ത് കൂടാതെ നമുക്ക് തരുന്ന മൂല്യങ്ങൾ വളരെ വലുതാണ് സ്റ്റാമ്പുകൾ പല രാജ്യങ്ങളിലെ സ്റ്റാമ്പുകൾ കാണാനും അവരുടെ നാണയങ്ങൾ തിരിച്ചറിയുന്ന കൈമാറ്റം ചെയ്യപ്പെട്ട രീതികൾ നമുക്ക് തിരിച്ചറിയാം അമൂല്യമായ സമ്പത്താണ് അപ്പം ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ പണ്ടത്തെ മൂല്യങ്ങളും പണ്ടത്തെ കാര്യങ്ങളും പണ്ടത്തെ സംസ്കാരങ്ങളുമൊക്കെ വിളിച്ചോതുന്ന സ്റ്റാമ്പുകളും നാണയങ്ങളും കല്ലുകളൊക്കെ വളരെയധികം പ്രാധാന്യമേറുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോൾ ലഭ്യമല്ലാത്തതും പണ്ട് കാലങ്ങൾ നമ്മൾ ശേഖരിച്ച് വെച്ചിരുന്ന ഓരോന്നും പഴമയുടെ പുതുമയിലേക്ക് കൊണ്ടുവരാനും പഴമയുടെ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാനും ഒക്കെ നാം ശേഖരിച്ച് വെച്ച സ്റ്റാമ്പുകളും നാണയങ്ങളും കല്ലുകളളൊക്കെ വളരെയധികം നമ്മളെ സഹായിക്കും മൂല്യങ്ങൾ അതായത് മൂല്യം മൂല്യ ശോഷണം സംഭവിക്കാതെ അവടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് എല്ലായിടത്തും എല്ലാ എല്ലാ രാജ്യക്കാരും എല്ലാ സ്ഥലങ്ങളും എല്ലാ നാണയങ്ങളും പണ്ടത്തെ നാണയങ്ങളുടെ വിലയും മൂല്യവും ഒക്കെ തിരിച്ചറിയാനായിട്ട് ഈ വന്ന കാലത്ത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറി മറിഞ്ഞ് കൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും നമുക്ക് അതിനെ കൂടുതൽ കൂടുതൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും മൂല്യം മനസ്സിലാക്കാനും ഒക്കെ വളരെ നല്ലതാണ് അന്നത്തെ ഇത്രത്തോളം വാല്യു ഉണ്ടായിരുന്നല്ലോ അന്നത്തെ ആ പൈസയ്ക്ക് ഇത്ര മാത്രം വാല്യു ഉണ്ടല്ലോ ആ നാണയങ്ങൾ ഇന്നത്തെ നാണയങ്ങളെ തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴും ആ നാണയങ്ങളുടെ മൂല്യത്തെയും കല്ലുകളുടെയും സ്റ്റാമ്പുകളുടെയും ഒക്കെ മൂല്യം വളരെയധികം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അത് വളരെയധികം മനുഷ്യ മൂല്യങ്ങളെ പോലെ ജീവിത മൂല്യങ്ങളെ പോലെ തന്നെ അമൂല്യമായ ഒന്നാണ് പണ്ടത്തെ മൂല്യങ്ങൾ മുറുകെ പിടിക്കാനും മൂല്യങ്ങൾ മുറുകെ പിടിച്ചു കൊണ്ട് മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കൂ മൂല്യങ്ങൾ എന്ന് കൈമോശം വരുന്നു അന്നേ നമുക്ക് നമ്മുടെ പാരമ്പര്യങ്ങളും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് എല്ലാ മൂല്യ ബോധത്തോടെ തന്നെ കാത്തു സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം നല്ല മൂല്യങ്ങളും നല്ല ബോധ്യങ്ങളും നല്ല കാര്യങ്ങളും ആണ് നമ്മുടെ ശേഖരണത്തിലൂടെ നമുക്ക് കിട്ടുന്നത് നമുക്കൊരു ആത്മസംതൃപ്തിയും പണ്ടത്തെ കാര്യങ്ങൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ തലമുറകളിലേക്കും കാണിക്കാനും ഒക്കെ നമുക്ക് സധിക്കും പണ്ടത്തെതും ഇപ്പോഴത്തെയും കമ്പാരിസൺ ചെയ്യാൻ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് വളരെയധികം മൂല്യമുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം